ഹൈക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം മലകൾ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ താമസിക്കുന്നത് കേരളത്തിലെ മലനാടുകളിലൊന്നായ ഇടുക്കിയിലാണ് അപ്പം ഞാനിവിടെ മലകൾ ധാരാളം അല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു ഒരു കയറ്റയിറക്ക് പ്രദേശാണ് അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എനിക്ക് മലകളോട് ഒരു താല്പര്യം കാണില്ല വനങ്ങളാണെങ്കിൽ ഇവിടെ ഒത്തിരി അധികം ഉണ്ട് എനിക്ക് ഈ ബീച്ചുകളോടാണ് താൽപര്യം കാരണം നമുക്കറിയാം ബഡിക്കയില് ബീച്ചില്ല സോ ബീച്ചിൽനിന്ന് കിട്ടുന്ന ഒരു ആനന്ദം ഒരു പ്രത്യേക ഒരു ഉല്ലാസമാണ് അതുപോലെത്തന്നെ ആ ആ ബീച്ചിലെ സൂര്യാസ്തമയം അല്ലെങ്കിൽ സൂര്യോദയം ആ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഘടകങ്ങളിലൊക്കെ ഒന്നാണ് നമുക്കറിയാം നമുക്ക് ഒരു കാര്യം ഒരു ഒരു ഒരു ഒരു എന്താ ഒരു ഘടകം ഇല്ലാതിരിക്കുമ്പം നമ്മൾ ആ ഇല്ലാത്തതിനെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളൂ ഉള്ളതിനെ നമ്മൾ ഇഷ്ടപ്പെടും എന്നിരുന്നാലും നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണത് നൽകുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബീച്ചുകളുടെ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ ആനന്ദം പകര്ന്നിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും എനിക്ക് സന്തോഷം പകർന്നിട്ടുള്ളതും